നമ്മളെ നാട്ടിൽ ഒരു കാവുണ്ട് അവിടെ ഈ ഡിസംബർ മാസം ആദ്യം ഒന്ന് രണ്ട് മൂന്നാണ് അവിടെ തെയ്യം ഉണ്ടാകുന്നത് അപ്പം തെയ്യത്തിന് അന്നവിടെ ഭയങ്കര ആഘോഷങ്ങളായിരിക്കും ആഘോഷങ്ങളും പരുപാടിയും ഒക്കെ ആയിരിക്കും ഡിസംബർ ഒന്നിന് അവിടെ ഭയങ്കര എന്താ പാട്ട് ഡാൻസ് ഗാനമേള അങ്ങനെയൊക്കെ പരുപാടി ഉണ്ടാവും പിന്നെ ഡിസംബർ രണ്ടിന് രാത്രിയിൽ കലശം വരികയെന്നൊക്കെ പറയും അവിടെ ഓരോ വീട്ടിൽ നിന്ന് കലശം ഒക്കെ ഉണ്ടാവും ഓരോ വീട്ടിൽ നേർച്ച ആയിട്ട് കലശം ഒക്കെ എടുക്കുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ള കലശങ്ങളും കാഴ്ചവരവ് ഒക്കെ ഉണ്ടാവും കാഴ്ചവരവ് ഓരോ നാട്ടുകാർ ഓരോരോ എരിയയിലുള്ള ആൾക്കാർ പിരിവെടുത്തിട്ട് ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് പരിപാടിയൊക്കെ വയ്ക്കും അപ്പം അങ്ങനെ കാഴ്ചവരവ് കലശമൊക്ക അന്നു രാത്രി ഉണ്ടാവും അന്ന് രാത്രി ഒരു ഒരു മണി വരെ ഒക്കെ അവിടെ ഭയങ്കര പരിപാടി ആയിരിക്കും ഈ കലശവും കാഴ്ചയൊക്ക അമ്പലത്തിൽ കാവിലെത്തും കാവിലെത്തിയിട്ട് കാവിലെ ഗ്രൗണ്ടിൽനിന്ന് നല്ല ഒച്ചയിൽ ചെണ്ട മുട്ടലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരിക്കും പിറ്റേ ദിവസം മൂന്നാം തീയതി ആയിരിക്കും അവിടെ തെയ്യം ഉണ്ടാവുന്നത് തെയ്യത്തിന് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും തെയ്യത്തിന് തെയ്യം കെട്ടും അന്നും ഭയങ്കര ആഘോഷങ്ങളായിരിക്കും അവിടെ അങ്ങനെയൊക്കെ